ആ അതെ അതെ അതെ ഞാന് കുറച്ച് ഫുഡ് ഓർഡറെയ്യാൻ വേണ്ടി വിളിച്ചതാണേ നമുക്ക് കുറച്ച് സ്റ്റുഡൻസ്സൊക്കെ വരുന്നുണ്ട് ആ ഇവിടേക്ക് വരുന്നുണ്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അവരൊരു പതിനഞ്ചുപേരുണ്ട് അപ്പോൾ അവർക്കൊരു പിന്നേ ഒരു പതിനഞ്ച് പിന്നെ ബീഫ് ബിരിയാണി മതി ആ ഒക്കെയോക്കെ പതിനഞ്ചല്ല പതിനെട്ട് നമുക്കിവിടെ വീട്ടിലാൾക്കാരുണ്ടല്ലോ പതിനെട്ട് ബീഫ് ബിരിയാണി ഓക്കേ ഒരു ഓ ഒരുമണിയാവുമ്പോത്തേക്കും അവര് ഒന്നരയൊക്കെ ആവുമ്പോഴേ എത്തുള്ളൂ ഒരുമണി ആവുമ്പോഴത്തേക്കൊന്ന് എത്തിക്കണേ അല്ല കേട്ടോ നമ്മള് ഇപ്പോൾ അവിടുന്നു മാറി അതവിടെ കൊറച്ച് സീനൊക്കെയായി അതായത് ഇത് വാടകേൻ്റെ കാര്യങ്ങളിലൊക്കെ കുറച്ച് സീനൊക്കെ ആയതോണ്ട് നമ്മളിപ്പോൾ വേറൊരു സ്ഥലത്തേക്കാണിപ്പോൾ പിന്നെ നമ്മള് കോഴിക്കോട് ബൈപാസ്സിൻ്റെ അവിടെയൊക്കെ ആയിട്ടാണേ ആ അവിടെയൊരു പിന്നെ പിന്നെ ചെറിയൊരു വീടെടുത്തിട്ടാണ് താമസിക്കുന്നേ അപ്പോൾ ഇങ്ങോട്ട് വന്നാൽ മതി ഞാൻ അത് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാന് വാട്സ്പ്പിൽ സെൻഡീയാം വാട്ട്സാപ്പ് ചെയ്യാം ആ ആ ആ ഓക്കേയോക്കെയോക്കെ അ എന്നാൽ ഞാൻ വാട്ട്സാപ്പ് ചെയ്യാം ആ ശരി ഒന്നരയാവുമ്പോ എത്തിക്കണേ ഓക്കേ